അതെ ഇപ്പോൾ പത്രങ്ങൾ എല്ലാം ഒരു അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടീട്ട് അവർക്ക് ടി ആർ പി റേറ്റിംഗ് കേറാൻ വേണ്ടീട്ടാണ് അപ്പോൾ എല്ലാ പത്രങ്ങളും അവരുടെ വാർത്തകൾ പ്രസിദ്ധികരിക്കുന്നത് സത്യമായ വാർത്തകൾ വളരെ കുറവാണ് എല്ലാ പത്രങ്ങളിലും വരുന്നത് അവർക്ക് ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിപ്പിക്കുന്ന അവർക്ക് തോന്നാം അങ്ങനത്തെ ഇത് മാത്രമാ അവർ ഇടുന്നത് സത്യസന്ധമായ വാർത്തകൾ ഇടുന്ന അപൂർവ്വ പത്രങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ പത്രവും സത്യമാകണം എന്ന് ഇല്ല ആ പക്ഷെ ഇപ്പോൾ എല്ലാ പത്രങ്ങളും അവരുടെ ബിസിനസ്സാണ് അവർ മുന്നോട്ട് വെയ്ക്കുന്നത് ആർക്കും സത്യസന്ധമായ വാർത്തകളോട് താല്പര്യമില്ല പൊതുവെ പറഞ്ഞ ഒരു അഭിപ്രായമാണ് എല്ലാ പത്രങ്ങളും കാണിക്കുന്നത് അവരെ അവരുടേതായ കാഴ്ചപ്പാടുള്ള ഇത്കളാണ് ആരും സത്യമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ പത്രങ്ങൾ ഉണ്ട് പക്ഷെ അവയെല്ലാം അപൂർവ്വം ചില പത്രങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ ഇപ്പോൾ ഓരോ പാർട്ടിക്ക് ഓരോ പത്രം അങ്ങനെയെന്ന പോലെ കാഴ്ചപ്പാടാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ട് വരുന്നത് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഓരോ പാർട്ടിക്ക് പറയുമ്പോൾ അവരുടെ ന്യൂസുകൾ മാത്രമേ അവര് അവരുടെ പത്രത്തിൽ ഇത് അവർക്ക് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും നല്ല ഇതുണ്ടെങ്കിൽ ആ വാർത്തകൾ മാത്രമേ അവർ അവരുടെ പേപ്പറിൽ പ്രസിദ്ധീകരിക്കാറുള്ളൂ പിന്നെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കുറ്റകൃത്യങ്ങൾ അത് മാത്രമേ അവര് അതിൽ പ്രസിദ്ധീകരിക്കാറുള്ളൂ എല്ലാം അവർക്ക് അനുകൂലമായ വാർത്തകൾ ആയിരിക്കും അവർ ഇടുന്നത് അതുകൊണ്ട് മാധ്യമങ്ങൾ കാണിക്കുന്നത് ചിലത് നല്ല കാര്യങ്ങൾ കാണിക്കുന്ന മാധ്യമങ്ങളുമുണ്ട് ചിലത് ചീത്ത കാര്യങ്ങൾ കാണിക്കുന്ന സത്യമല്ലാത്ത കാര്യങ്ങൾ കാണിക്കുന്ന മാധ്യമങ്ങളുമുണ്ട് അപ്പോൾ